കൃഷിയെ കുറിച്ച് പുതിയ തലമുറയോട് എനിക്ക് ഇനി പറയാനുള്ളത് എല്ലാവരും കൃഷിയെ നന്നായി പ്രോത്സാഹിപ്പിക്കണം നമ്മൾ കുറച്ച് സ്ഥലമേ ഉള്ളൂന്ന് വിചാരിച്ചിട്ട് കൃഷി ചെയ്യാതിരിക്കരുത് മണ്ണും ചാണകപ്പൊടിയും മിക്സാക്കിയിട്ട് എല്ലാവരും തന്നെ ട്ടറസിൻ്റെ മേലേം എൽ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നമുക്ക് കൃഷി ചെയ്യാം പച്ചമുളക് തക്കാളി അതുപോലെ തന്നെ വഴുതനങ്ങ വെണ്ടക്ക പയർ ഇതെല്ലാം കൃഷി ചെയ്യണം പുതിയ തലമുറയിലുള്ള ആ ഒരാളും ഇപ്പം കൃഷി അങ്ങനെ ചെയ്ത് ചെയ്യാറില്ല അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ നമുക്ക് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അത് നമുക്ക് ഒഴിവ് സമയം കിട്ടുന്ന നേരത്തൊക്കെ കുറച്ച് മണ്ണ് നിറച്ച് ഒരു കവറിൽ മണ്ണ് നിറച്ച് പച്ചക്കറീൻ്റെ തൈകൾ വിതച്ച് രണ്ട് നേരം വെള്ളം ഒഴിച്ച് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അതായത് ജൈവ ജൈവ വളം തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം കാരണം പുറത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് വിഷം ചേർന്ന പച്ചക്കറികളാണ് നമുക്ക് ശുദ്ധമായ പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് എടുക്കാൻ എല്ലാവരും തന്നെ നല്ല പ്രോത്സാഹിപ്പിക്കുക